എനിക്ക് കൂടുതലും എഴുതാനാഗ്രഹമുള്ള കാര്യങ്ങളെന്തെക്കെയാന്ന് വെച്ചിട്ടണ്ടെങ്കിൽ എനിക്ക് എനിക്ക് കവിതകള് കഥകളൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ട്ടമാണ് പിന്നേന്ന് വെച്ചാൽ മെയ്നായിട്ട് ഞാനൊരു ഡയറി എഴുതുന്നൊരു വ്യക്തിയാണ് പണ്ട്തൊട്ടേ അതായത് ഇപ്പം പണ്ട് തൊട്ടേ ഡയറി ഒക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ട്ടമാണ് നമ്മളിപ്പോൾ ഒരുദിവസം നടന്ന കാര്യങ്ങള് നമുക്ക് സന്തോഷം നൽകിയ കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മടെ ദുഃഖം കാര്യങ്ങള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി ചേർക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തെന്നവെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയ്നായിട്ട് അതാണിഷ്ടം പിന്നെന്ന് വെച്ചിട്ടണ്ടെങ്കില് നമ്മളിപ്പം ഡയറിലും കാര്യങ്ങളിലൊക്കെ എഴുതുവാണെങ്കിൽ നമുക്ക് നമ്മളെപ്പഴെങ്കിലും ഒന്ന് വായിക്കുമ്പം നമുക്ക് പിന്നീടതൊരു രസായിരിക്കും നമ്മള് എഴുതുമ്പം നമ്മള് വലിയ രസമൊന്നും ആയിരിക്കില്ല നമ്മള് കുറേക്കാലം കഴിഞ്ഞിട്ട് അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നും ഓ നമ്മളിങ്ങനെയൊക്കെ എഴുതിയതാണല്ലോ നമ്മള് എഴുതിയതാണല്ലോന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ല രസമൊക്കെ തോന്നും അപ്പം എനിക്കങ്ങനെയൊക്കെ എഴുതാനാണിഷ്ടം പിന്നെ ഞാനത് പണ്ട് പണ്ടൊക്കെ ഞാൻ കഥയും കവിതയൊക്കെ എഴുതുവായിരുന്നു കാരണം എനിക്ക് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയുണ്ടെങ്കിൽ ഞാനത് അതായത് ഒരു കഥയാക്കീട്ടോ കവിതയാക്കിയിട്ടോ എഴുതാൻ ശ്രമിക്കുവായിരുന്നു അതൊക്കെയെനിക്ക് ഭയങ്കര ഇഷ്ടാമാണ് അങ്ങനൊക്കെ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ട്ടവുമായിരുന്നു